ചുണ്ടൻ വള്ളങ്ങള്പോലെ മിനിയേച്ചര് ചെയ്യാന് പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് കഥകളി കേരളത്തിൻ്റെ സംസ്കാരം ലോകത്തിലെല്ലാവർക്കും എത്തിക്കുന്ന ഒരു മിനിയേച്ചറാണ് കഥകളി ഇപ്പോള് പ്രധാനമന്ത്രിയാണെങ്കില്ത്തന്നെ പുറത്തൊക്കെ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രികളെയും അവിടത്തെ നേതാക്കളെയൊക്കെ കാണാന് പോകുമ്പോള് നമ്മുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ചെറിയ ചെറിയ മിനിയേച്ചർ കരകൗശല വസ്തുക്കള് കൊണ്ടുപോവാറുണ്ട് അതിലൊന്നാണ് കഥകളി ആനത്തല ഇതൊക്കെ മിനിയേച്ചറായിട്ടുണ്ടാക്കുമ്പോള് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം മറ്റുള്ളവരിലേക്കെത്തിക്കുകയാണ് ചെയ്യുന്നത് ചുണ്ടൻ വള്ളം പോലെതന്നെ വളരെ പ്രധാനമുള്ളതാണ് കഥകളിയും ആനയുടെ തലയും പിന്നെ മിനിയേച്ചറായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നതാണ് ചെറിയ ചെറിയ ഈ കലാരൂപങ്ങളുടെ മിനിയേച്ചര് ഈ ഭരതനാട്യം മോഹിനിയാട്ടം ചെറിയ ചെറിയ മിനിയേച്ചേഴ്സ് ചെയ്യാറുണ്ട് പിന്നെ തഞ്ചാവൂർ ബൊമ്മ മിനിയേച്ചര് ചെയ്യാറുണ്ട് അങ്ങനെ കുറേ മിനിയേച്ചേഴ്സ് കേരളത്തിൻ്റെ പൈതൃകത്തെ സൂചിപ്പിക്കാനായിട്ട് ഇന്നും നിലവില് ഉണ്ടാക്കുന്നുണ്ട്